നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ കുറച്ചു രാജാക്കന്മാരുടെ പേരുകളും അതിൽ കൊച്ചിരാജാവിൻ്റെ ആ വിശേഷങ്ങളുമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നമുക്ക് ശ്രീ ശ്രീ രാമവർമ്മ സ്വാതി തിരുന്നാൾ മാർത്താണ്ഡവർമ്മ അങ്ങനെ ഒരുപാട് പേരുകേട്ട രാജാക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ കൊച്ചി രാജാവായ രാമവർമ്മ ശ്രീ ശ്രീ രാമവർമ്മയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പുള്ളി നാടുവാണീടുന്നിടത്തോളം നമുക്ക് ജനങ്ങളിലെല്ലാം ജനങ്ങളിൽ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു രാജവാഴ്ചയിൽ രാജാവിൻ്റെ ഭൂമിയെല്ലാം കുറേയൊക്കെ പാട്ടത്തിന് ദാനം നൽകിയും ജനങ്ങൾക്ക് കൃഷിയും മറ്റും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സഹായിച്ചിരുന്നു രാജവർമ്മ രാമവർമ്മ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ആക്രമങ്ങൾക്കൊക്കെ പുള്ളി യുദ്ധങ്ങൾ പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്തതൊക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട് രാമവർമ്മയുടെ രാജ്യകാലത്ത് ജനങ്ങൾക്കെല്ലാം ഓരോ ധാനങ്ങളും നാണയങ്ങളും സ്വത്തുമൊക്കെ പതിച്ച് അവർക്ക് നിത്യ ജീവിതത്തിനുവേണ്ടി നൽകിയിരുന്നു